ആ ഞങ്ങൾ ഈയിടെ കോഴിക്കോടിന് പോകാൻ വേണ്ടി പോവുകയായിരുന്നു അന്ന് അപ്പം കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലത്തിന് മുമ്പേ നിങ്ങളുടെ ഒരു കാറ് നിങ്ങളുടെ ഒരു കാറിന് കാബിൽ ഞങ്ങൾ യാത്ര ചെയ്തിരുന്നു അപ്പം ആ ഒരു ഡ്രൈവറും ആ ഒരു കാറും ഞങ്ങൾക്കു അത് ഒത്തിരിയും യാത്ര നല്ല സൗകര്യത്തോടെ ഞങ്ങളെ കൊണ്ടു പോവുകയും തിരിച്ച് കൊണ്ടു വരികയൊക്കെ ചെയ്തതാണ് അപ്പോൾ ആ ഒരു പരിചയം വച്ച് ഞങ്ങൾക്ക് ഇപ്പം കോഴിക്കോടിന് പോവേണ്ട ഈ സമയത്ത് ഞങ്ങൾ പിന്നെ നിങ്ങളെ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ ആ ഡ്രൈവറും ആ കാറും നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മൾക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് അഡ്ജസ് ചെയ്യുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കാരണം നമുക്ക് പോകണ്ട സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട് പിന്നേ ചാർജൊക്കെ കണ്ടമാനം ഒന്നും നിങ്ങളെ ഗ്രൂപ്പിൽ മേടിക്കത്തില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് അങ്ങനെ അനുഭവമുണ്ടല്ലോ മേടിക്കത്തില്ല എന്നുള്ളത് നമുക്ക് അറിയാം അത് കൊണ്ട് നമുക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളത് കാരണം നിങ്ങളുടെ നിങ്ങളെ തന്നെ ഞങ്ങൾ വിളിച്ചത് അപ്പോൾ ഇനിയും അങ്ങനെ ഒത്തിരി ഒത്തിരി കാരണം എൻ്റെ മകളെ കെട്ടിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് അപ്പം ഇനിയും നമുക്ക് അങ്ങോട്ട് പോകാനും എടുക്കാനുമൊക്കെ ഒത്തിരി സമയങ്ങളും അതൊക്കെയുണ്ട് അപ്പം അതിന് എല്ലാത്തിനും നിങ്ങളെ തന്നെ വിളിക്കാനും എടുക്കാനുമൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മളെ പ്ലാന് ഇനിയും നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സഹകരണം എങ്ങനെയാണെന്നുള്ള ഇനിയുള്ള സഹകരണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ ഇപ്പം ഇത്രേയും നാളും കുഴപ്പം ഇന്നാൾ ഞങ്ങൾ പോയപ്പൊഴൊക്കെ ഞങ്ങളോട് നല്ല സഹകരണമായിരുന്നു നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് സഹകരിക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് അപ്പം ഞങ്ങൾക്ക് കുറേ കോഴിക്കോടിൽ ചെന്നിട്ട് ആണേലും ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറേ യാത്രകളൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവിടെ എല്ലാം നിങ്ങളുടെ ഈ കാറിൽ തന്നെ പോകാൻ സഞ്ചരിക്കാനാണ് ഞങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യം ഇപ്പം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നുകഴിഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ടുള്ള ഒരു ഇതിൽ വേണം നിങ്ങൾ വരാനും അപ്പോൾ എന്തുവാണെങ്കിലും രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരു യാത്ര കാണുമായിരിക്കും എങ്കിൽ എന്നാണെങ്കിലും രണ്ടു മൂന്ന് ദിവസത്തേക്ക് കാണുമായിരിക്കും ഈ യാത്ര അപ്പോൾ ഈ രണ്ടു മൂന്ന് ദിവസവും നിങ്ങൾ അത് നിങ്ങളുടെ ആ കാറിൻ്റെ ഡ്രൈവറും കാറും നമ്മൾക്ക് പൂർണമായിട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ആ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളോട് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതിന് ഞങ്ങളോട് സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം മൂന്ന് കൊല്ലത്തിന് മുമ്പായിട്ട് മുമ്പ് നമ്മളോട് മേടിച്ച റേറ്റ് ഒത്തിരി കുറവായിരുന്നു മറ്റുള്ള ടാക്സി അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഒത്തിരി റേറ്റ് കുറവായിട്ടാണ് നമ്മൾക്ക് തോന്നിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനിയും അങ്ങനെ അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഈ റേറ്റ് തന്നെ ഈ കുറഞ്ഞ റേറ്റ് തന്നെ നമ്മൾക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കൊണ്ടുപോകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ സഹകരണം ഞങ്ങൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നു പിന്നേ നമ്മൾക്ക് കൂടുതൽ സ്ഥലങ്ങൾ നമ്മൾക്ക് അവിടെ അറിയത്തില്ലല്ലോ കോഴിക്കോട് എന്ന് പറഞ്ഞ്ക്ക്പ്പം കുറേ കുറേ സ്ഥലങ്ങൾ ഉണ്ടല്ലോ അത് ആ സ്ഥലങ്ങളൊന്നും നമ്മൾക്ക് അറിയത്തില്ല അപ്പോൾ അവിടെ എല്ലാം നമ്മൾക്ക് കാണണ്ടതായിട്ടുള്ള രീതിക്കാണ് നമ്മൾക്ക് എല്ലാ അവിടെ എല്ലാം പോയി കാണാനും എല്ലാം പോകാനൊക്കെ ആയിട്ട് നമ്മൾക്ക് നമ്മളെ ഒന്ന് കൊണ്ടു പോകണം അതിന് പരിചയമുള്ള ആ ഡ്രൈവറും ആ കാറും തന്നെ നമുക്ക് വേണം അവരോട് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുക എടുക്കുകയും ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കൂടുതലയിട്ട് അവരോട് പരിചയപ്പെട്ടല്ലോ പരിചയപെട്ടപ്പോഴത്തേക്കും വേറെ ഒരാളെ നമ്മൾക്ക് അവിടേ വരേണ്ട കാര്യവില്ല അവർ തന്നെ മതി എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പം അതുകൊണ്ട് അവരെ തന്നെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ അവരെ തന്നെ നമ്മുടെ കാറിലെ കാറിൻ്റെ കാബിൽ നമുക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം നിങ്ങളെ ഉണ്ടാക്കി തരണം അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ബുക്ക് ചെയ്യുന്നത് നമുക്ക് വെറേയും കാറ് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ നിങ്ങളാണ് മൂന്നു കൊല്ലത്തിനു മുമ്പ് ആണെങ്കിലും നിങ്ങളോട് അത്രയ്ക്കും ഇഷ്ടമായ ഒരു രീതിക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ ഞങ്ങളുടെ ഇതിലേയ്ക്ക് വരണമെന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ആ ആ ആഗ്രഹം ഞങ്ങൾക്ക് പൂർത്തീകരിക്കണമെങ്കിൽ ഞങ്ങളോട് നിങ്ങളോട് സഹകരിക്കുന്നതു പോലെതന്നെ ഞങ്ങളും തിരിച്ച് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയോടെ നിങ്ങളുടെ കാറ് ഞങ്ങൾ ബുക്ക് ബുക്ക് ചെയ്യാനായിട്ട് വരികയാണ് നമുക്ക് കാണേണ്ട സ്ഥലങ്ങൾ എല്ലാം പോവാനും നാം പോയിട്ട് നമ്മളെ തിരികെ ഏതു സ്ഥാനത്താണോ വരണ്ടത് അവിടെ കൊണ്ട് എത്തിക്കുവാനും നിങ്ങൾ താല്പര്യപ്പെടുമോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ആ ഒരു ഉറപ്പിൻമേൽ നിങ്ങളുടെ കാറ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നു